പുസ്തകങ്ങള് വായിക്കാൻ അതിയായി ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതല് വായിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ഷേക്സ്പിയർ എഴുതിയതും ഷേക്സ്പിയർ എഴുതിയ പുസ്തകങ്ങള് തൊട്ട് എനിക്ക് വായന എന്ന് പറയുന്നത് ഇഷ്ടമാണ് ഇപ്പോള് പുതിയതായി വരുന്ന ആളുകൾ എഴുതുന്ന പുസ്തകങ്ങൾ ആണെങ്കിലും പണ്ട് ചാൾസ് ഡിക്കൻസ് അങ്ങനെയുള്ള ആൾക്കാരെഴുതുന്ന ബുക്കുകളും എല്ലാം വായിക്കാൻ എനിക്കിഷ്ടമാണ് ഏറ്റവും കൂടുതല് ഞാന് വായിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ആണെങ്കിലും മറ്റു രാജ്യങ്ങളിലെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതിയതും ഞാൻ വായിക്കാറുണ്ട്

സ്പാനിഷ് പുസ്തകങ്ങള് ഇറ്റാലിയൻ പുസ്തകങ്ങള് അങ്ങനെയുള്ള ഒത്തിരി പുസ്തകങ്ങളെ പലപല എഴുത്തുകാരും ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് അപ്പോള് അതൊക്കെ വായിക്കുമ്പോള് അവരുടെ നാട്ടിലെ കുറിച്ചും അവരുടെ ജീവിത രീതിയിനെക്കുറിച്ചും അവരുടെ ചിന്തകൾ എങ്ങനെയാണ് അവർക്ക് അവിടെ നമ്മളിൽ നിന്ന് എന്താണ് അവരെ വ്യത്യസ്തരാക്കുന്നത് എന്നൊക്കെ നമുക്ക് പുസ്തകങ്ങളിലൂടെ അറിയാന് പറ്റും അതുപോലെ ഒരു സിനിമ കാണുന്നതുപോലെയാണ് എനിക്ക് പുസ്തകം വായിക്കുന്നത് ആളിൽ ചിലർക്ക് സിനിമ കാണുന്നതിനോട് ആയിരിക്കും താല്പര്യം ചിലർക്ക് വായനയോടായിരിക്കും താല്പര്യം വായന താൽപര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് സിനിമ സിനിമ കാണുന്നതുപോലെയാണ് ഞാൻ പുസ്തകം വായിക്കുന്നത് അപ്പോഴത് പഠിക്കാൻ പുസ്തകം വായിക്കാനായി ഒരു ഭാഷ പഠിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും ഞാനൊരു ഭാഷ പഠിക്കും കാരണം വായന എന്നതെനിക്ക് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ എത്രത്തോളം എനിക്ക് വായിക്കാൻ കഴിയുമോ അത്രത്തോളം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോള് ഉറപ്പായും പുസ്തകങ്ങൾ വായിക്കാനായി മറ്റൊരു ഭാഷ പഠിക്കാൻ പഠിക്കണമെന്നാണെങ്കിൽ ഞാൻ ഉറപ്പായും അത് പഠിക്കാൻ ശ്രമിക്കും കാരണം അങ്ങനെ പഠിക്കുന്നതിലൂടെ എനിക്ക് വായന മാത്രമല്ല ഭാവിയിലും എനിക്ക് അങ്ങനെ മറ്റൊരു ഭാഷ പഠിച്ചത് കൊണ്ടുള്ള ഉപയോഗങ്ങള് ജോലി സ്ഥലത്തും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോഴും ഒക്കെ ഉപകാരപ്രദമായിരിക്കും അതിനാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളെല്ലാം മറ്റൊരു ഭാഷ ഉറപ്പായും പഠിച്ചിരിക്കണം